ഇപ്പ ഞാൻ എൻ്റെര അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് അത്രയും സിറ്റി ലൈഫിലോണ്ട് എനി കുടുംബം താല്പര്യമുള്ള എനിക്ക് ഒരു നാട്ടപ പ്രദേശത്ത് ജീവിക്കാനാണ് താല്പര്യം പിന്നെ ഇതുകൊണ്ട് യുവതലമുറക്ക് അനുയോജമായ ജീവിത പങ്കി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദച്ച് കഴിഞ്ഞാാല ഇപ്പ എല്ലാവരും എവരോടൊക്കെ പോയാണ് സെറ്റാവണത എല്ലാം പഠിച്ച് എവരോട് പോയാണ് സെറ്റാവണത് അപ്പ അവിടന്നേനി ഇപ്പോ കല്ല്യാ വീട്ടുകാര് പോലും ചെലപ്പോ വന്നെറങ്ങുമ്പോ ആയിരിക്കും കയ്യിലൊരു കുട്ടി അപ്പ അത് എനിിക്ക അറിയണത് കല്യാണം കഴിഞ്ഞൊരു ഒച്ചായിന്ന് അങ്ങനത്തൊരു ഇ തോട്ടാണ് അങ്ങനൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മ ഇപ്പോ മുന്നോട്ട് കൊണ്ട്ോണത് എപ്പല്ലാം ലിവിങ്് ടുദർ അങ്ങനെയൊക്കെയാണ് ആരും അങ്ങനെ മാര്യേജ് ലൈഫ് പണ്ടത്തെ പോലത്തെ അങ്ങനെൊ ഒരു മാര്യേജ് ലൈഫ്ന്നള് ഇതിനോടുത്തോട്ട് പോണില്ല പിന്നെിറ്റി ലൈഫ എന്ന് പറയുമ്പോ എല്ലാരും ഫുൾ ബിസിയ ആയിരിക്കും അ അവരവിടുതായ കാരങ്ങള് ഓരോ തതിരക്കിലായിരിക്കും അപ്പോ ചെലപ്പ ഇപ്പ നാടൻേങ്ക കൊച്ചിനന് ഇഷ്ടപ്പെടണൊരു പോയാണെങ്കി ചെലപ്പോ കിട്ടുന്ന മോഡേണാണെങ്കി അവിടെ ഭങ്ക്േതായ പ്രശ്നങ്ങള് വരണം ഡ്രസ്സിംഗങ് സ്റ്റൈലായാലും ഓരോരോ കാര്യങ്ങളില് പണ്ടത്തെ പോലെ എന്താ പറയാ പെൺകുട്ടികള് മുതിർന്നവർക്ക്ിങ്ങനെ ബഹിമാനം കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതലും അറിയത്തില്ല എല്ലാവർക്ക അവരവരുടെ ഇഷ്ടം എന്നുള്ളതിനലാണ് പിന്നെ ഇപ്പ എല്ലാരും ജോലിക്കും കരിയറിനണ് മുൻഗണിന കൊടുക്കണ ആരും മാരേജ് ലൈഫ് എന്നുള്ള ഇതില ആരും തെരഞ്ഞെടുക്കണൊന്നുല്ല അതുപോലെ തന്നെ ഇപ്പോ മിക്കടത്തും ഇപ്പ പെണ്ണങ്ങളക്കെ കിട്ടാനില്ലാത്ത അവസ്ഥന്നെ എല്ലാവാരും ഇപ്പ കമ്മിറ്റഡായിയിരിക്കും അല്ലെങ്കി വിട്ട വകരായിരിക്കും അല്ലെങ്കി ജോലി നോക്കുന്നവരായിരിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങള് പറഞ്ഞ് ഡിമാൻഡ് ഇട്ട് വെക്കുന്ന ആളുകളാണ് ഇപ്പ കൂടുതള്ളത് ഗേൾസ് ഇനിപ്പ എങ്ങനെയനൊരു വീർന കിട്ടിയാലും അതും അതിൻ്റെതിടേക്ക് അയില പോരായ്മളും കാര്യങ്ങളും കാരണം അതും പ്രശ്നങ്ങള ഇണ്ടാവ മനസ്സണ്ട് പിന്നെ അതുപോലെ തന്നെ സിറ്റിയില വന്നട്ടട്ട് കൊറേ പ്രശ്നങ്ങള് നമ്മുടെ ജീവിതത്തിലണ്ടായിട്ടുണ്ട് ഇപ്പ കൂളും ഡ്രഗ്സിൻ്റെ യൂസായാലും ഇപ്പ ലേഡീസും ബോയ്സന്നൊന്നുല്ല ഇപ്പ എല്ലാവരും വന്നത് അതില കടിമേന് അപ്പോ അതൊക്കെ ആഫ്റ്റർ മാരേജ് ലൈഫ് ഇപ്പോ അതൊന്നും ഇഷ്ടല്ലാത്ത ഒരാാണെങ്കി അത് അയാൾക്ക് അയിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കിട്ടാണ്ടാവുന്നവരാണെങ്കി അയിൻറേതായ പ്രശ്നങ്ങളുണ്ടാാവും പിന്നെ എല്ലാവരും പറഞ്ഞലും ഇപ്പ ആ നാട്ടിലങ്ങനെ നിക്കണില്ല നാട്ടിലൻ്റെ കാര്യവല്ലാന്ന് പറഞ്ഞാ എല്ലാവരും എബറോട് പോണീന പിന്നെ അവിടെ വെച്ച് കല്യാണം കഴിക്കണേന് എന്നിട്ടാണ് അമ്മേച്ചഛന അറിയണത് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ച് ഇങ്ങനെയിരുന്നു അങ്ങനെയിരുന്ന് ലീവിൻ്റെ വിവറായിരുന്നു എന്നുള്ള ഇതിലൊക്കെ അതുപോലെ തന്നെ എന്താ പറയാ സിറ്റി ലൈഫ് ഇപ്പ ഭയങ്കര കുറച്ചൂടി അത് യൂസ്ഡായിയിട്ടുള്ളവർക്ക് ചെലപ്പ അതായിരിക്കുന്ന താല്പര്യം നാട്ടു പ്രദേശങ്ങൾ ജീവിക്കണവർക്ക് അത് അത്ര അസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്ന മൊത്തത്തില് ഇപ്പ ആൾക്കുംങ്ങനെ ജീവിത അനുയോജ്യമ ജീവിത പങ്കാളിക്ക് കിട്ടണില്ല പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് ജീവിക്കണത് ഇപ്പം നൂറിലൊരു തൊണ്ണൂറ് ശതമാനം മാര്ാരേജ് ലൈഫ് സക്സസ് അല്ല അയില് പത്ത് ശതമാനം പേരർക്കും ഒരു അത്യാവശ്യം അണ്ടർസ്റ്റാൻഡിങ്ങില് ജീവിക്കണത് അതിലിപ്പപ്പോ ലവ് മേജ്യിക്കോട്ടെ അറേഞ്ച് മേയേജ് ആയിക്കോട്ടെ ഇപ്പം കൂടുലും ഡൈവഴ്ും കാര്യങ്ങളൊക്കെയാണ് നടക്കണത് അപ്പോ അതിൻ്േതായ്പ ഒരായ്മകള് നമ്മടെ ലൈഫില് വരും അത് നമ്മടെ ഓരോ ലൈഫ് സ്റ്റൈലിൻ്റെ ഇതാണ് നമ്മള് മന്നിനോളും മാക്സിമം പണ്ടത്തെ ആൾക്കാര് പുരുത്തപ്പെട്ട് ജീവിക്കണോള ഇപ്പഴത്തെ തലമുറ ജീവിക്കണില്ല അതിൻ്റെ പ്രശ്നങ്ങളും എക്കെ ഈ മാരേജ് ലൈഫില് അവർക്ക് വരും